ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾക്കും ലോകത്തിനും കേരളം നൽകിയ പ്രധാന സാംസ്കാരിക സാമൂഹിക സംഭാവനകളെന്തൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്തായിപ്പം പറയുന്നത് കല സാഹിത്യം സംഗീതം ശാസ്ത്രം സാങ്കേതിക വിദ്യ അങ്ങനെയുള്ള തലങ്ങളിൽ എന്തോരം മികച്ച കയ്യൊപ്പാണ് കേരളം നടത്തിയിട്ടുള്ളത് അതുപോലെ ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണികൾ മണികൾ കേരളത്തിൻ്റെയൊരു മികച്ച സംഭാവന തന്നെയാണ് അതുപോലെത്തന്നെ കല കലാടിസ്ഥാനത്തിൽ നാടൻപാട്ട് നാടൻപാട്ട് കേരളത്തിൻ കേരളത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും ഉന്നത തലങ്ങളിൽ എത്തിച്ചിട്ടുള്ള ഒന്നാണ് നാടൻപാട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിന്ന് അതിൻ്റെയൊരു ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളം തന്നെയാണ് കേരളത്തെക്കുറിച്ച് പറയുമ്പോഴേ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരെ കുട്ടനാട്ടുകാരെക്കുറിച്ച് പറയുമ്പോൾ അതിപ്പൊൾ എന്താ പറയുക നാടൻ പാട്ടെന്ന് പറയുന്നത് കേരളത്തിന് തന്നെ ഒരു മികച്ച ഒരു കല അല്ലെങ്കിൽ ഒന്ന് ആണ് പിന്നെ സാഹിത്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒ എൻ വി മാധവിക്കുട്ടി ഇവരെയൊക്കെ കേരളത്തിൽ നിന്ന് കിട്ടിയത് തന്നെ നമുക്ക് നമ്മളെയൊരു ലോകത്തവർ അറിയപ്പെടുന്നത് എല്ലാം പറയാനാണെങ്കിലും എന്തൊക്കെയാണ് അവർ അവർ അവരുടെയൊക്കെയൊരു പ്രസൻസും കാര്യങ്ങളുമൊക്കെ കിട്ടിയത് തന്നെ കേരളത്തിൻ്റെയൊരു വല്യ സംഭാവനയാണ് മറ്റ് രാജ്യങ്ങൾക്കും വേണ്ടി കിട്ടിയേക്കുന്നത് അതുപോലെത്തന്നെ എന്താണ് സിനിമ തലങ്ങളിലായിക്കോട്ടെ നമുക്കറിയാം ഈയിടെ ഇറങ്ങിയ മിന്നൽ മുരളി എന്ന സിനിമ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽത്തന്നെ ഓസ്കാർ തലങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഓരോ എന്തും എല്ലാ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ ശാസ്ത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയേണ്ടത് അങ്ങ് ചന്ദ്രയാൻ്റെ പ്രൊജക്ടിൽ വരെ ഒരു മലയാളിയുടെ കയ്യൊപ്പില്ലാണ്ട് പറ്റില്ലാത്തൊരു സാഹചര്യം നമ്മളീ ഇടയ്ക്ക് കാണുകയുണ്ടായി മലയാളികളുണ്ട് അതിലും എല്ലാത്തിലും മലയാളികളെക്കുറിച്ച് ഇപ്പം എന്തിനാണ് മലയാളികളെന്ന് പറഞ്ഞാൽ എന്താണ് ഗോഡ്സ് ഓൺ കൺഡ്രീ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ എന്നാൽക്കൂടെ കേരളം എല്ലാത്തിൻ്റെ കൈയ്യൊപ്പ് ഓക്കെ എവിടെ ചെന്നാലും കേരളത്തിലെ ഒരാളെ കാണാൻ പറ്റാത്തൊരവസ്ഥ ഇല്ല അതുപോലെ സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യേശുദാസ് പോലെയുള്ള ആൾക്കാർ അവരെയൊക്കെ നമുക്ക് നമുക്ക് നികത്താൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ മറ്റൊരു യേശുദാസിനെക്കുറിച്ച് ഒരിക്കലുമില്ല അവരിൽനിന്നൊക്കെ നമുക്ക് നികത്താനാവാത്ത ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് പലയിടത്തുനിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു സാങ്കേതികവിദ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ കേരളം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലത്തന്നെ ശാസ്ത്രം ഞാൻ ഓൾറെഡി പറഞ്ഞു മണികൾ പോലുള്ള കാര്യങ്ങൾ കൊത്തുപണികളും കാര്യങ്ങളും ഒരുപാട് എന്താണ് നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റ് പല മറ്റ് പല ആൾക്കാരും അത് അനു അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് അത്രയ്ക്കും നല്ല എന്താണ് ഒരു കാര്യങ്ങളും സംസ്കാരം സംസ്കാരം കാര്യങ്ങളുമാണ് കേരളത്തിനുള്ളത് ഒരു മലയാളിയെന്ന് പറയുമ്പം തന്നെ അത്രയ്ക്കും ഒരു അവർ കൊടുക്കുന്ന ഒരു ബഹുമാനവും കാര്യങ്ങളും പറയാൻ പറയാൻ വിലമതിക്കാനാവാത്ത ഒന്നാണ് അത്രയൊക്കെയാണ് കേരളം നൽകിയൊരു കലാ സാംസ്കാരിക സാമൂഹിക സംഭവനകളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്